കോളേജ് ഡിഗ്രിയുള്ള ഒരാളാണ് ഞാൻ അവർ സ്വയം മുന്നേറി എന്നു തോന്നുന്നുണ്ടോയെന്നു ചോദിച്ചാൽ അത് അവർ ഒന്നു കൂടി നമ്മുടെ ഹയർ സെക്കൻഡറി മേഖലയിൽ നിന്നും മറ്റൊരു എക്സ്പീരിയൻസ് അവർക്കു കിട്ടി എന്ന നല്ല ബോധ്യമുണ്ട് ഡിഗ്രി എന്നു പറയുമ്പോൾ ഓ ഒരു തരത്തിൽ ഒന്ന് അഡ്വാൻസായി പഠിച്ചു നമ്മുടെ ഹയർ സെക്കണ്ടറി ആകുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു പര പഠനമാണ് ഡിഗ്രി എന്നുള്ളത് ഡിഗ്രി ഒന്നു കൂടിയും അറിയുന്നത്തു പോലെ തന്നെ ഒന്നു കൂടിയും സ്പെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള പഠനമാണ് അതുവരെ നമ്മൾ പഠിച്ചിരുന്ന രീതിയെന്നു പറഞ്ഞാൽ പല ലാംഗ്വേജായി പല വിഷയങ്ങളായിട്ട് അത് അതിൽ പല വിധത്തിൽ നമുക്ക് ബേസിക്കായിട്ട് അറിയേണ്ട ഒരു വ്യക്തി അറിയേണ്ട ഒരു കുട്ടി അറിയേണ്ട ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളറിയേണ്ട പല കാര്യങ്ങളടങ്ങിയിട്ടുള്ള ഒരു സിലബസ്സായിരിക്കും അതു വരെ നമ്മൾ സ്കൂളിൽ നിന്നാണെന്നുണ്ടെങ്കിലും അതിൻ്റെ മുന്നെ എൽ കെ ജി യു കെ ജി ആണെന്നുണ്ടെങ്കിലും

സാമൂഹ്യ ശാസ്ത്രം ബയോളജി ഫിസിക്സ് അതൊക്കെയാണ് മാക്സിമം നമ്മൾ ഹയർ സെക്കണ്ടറി എത്തുമ്പോൾ പഠിക്കുന്നത് അഥവാ ഒരു കുട്ടി അറിയേണ്ട പലതരത്തിലുള്ള അറിവുകളുടെ അറിവുകളുടെ ശാഖകളുടെ വിഷയങ്ങളുടെ ഒരു ബേസ് മാത്രമാണ് അതുവരെ നമ്മൾ പഠിച്ചിരിക്കുക അതിൽ നിന്നും ഡിഗ്രി ഉള്ള ഒരാളാകുമ്പോൾ അയാൾ പിന്നെ സ്പെഷലൈസ് ചെയ്യുകയാണ് ഒന്നെങ്കിൽ ബി ഒന്നെങ്കിൽ ബി എ ആയിരിക്കും അല്ലെങ്കിൽ ബികോം ആയിരിക്കും അങ്ങനെ ഒന്ന് സ്പെഷ്യലൈസ് ചെയ്യുകയാണ് ഒന്നെങ്കിൽ ഇപ്പം ബി എ പൊളിറ്റിക്സാണ് എന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ബി എ പൊളിറ്റിക്സുള്ള ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട് അതു പോലെ തന്നെ ബി എ ഹിസ്റ്ററി ഉള്ളവരുണ്ട് അപ്പം അവർ പൊളിറ്റിക്സ് അല്ലേ അവർ സ്പെഷലൈസ് ചെയ്യുകയാണ് അവർക്ക് ഒരു പൊളിറ്റിക്സിൽ പ്രത്യേകമായിട്ടുള്ള അറിവ് ഉണ്ട് ആ വിഷയത്തിൽ അവർ മുന്നേറിയെന്നു തന്നെ എനിക്ക് വ്യക്തമായിട്ട് തോന്നുന്നുണ്ട് അതിൽ നല്ല വിശ്വാസം എനിക്കുണ്ട് കാരണം അവർക്ക് ആ റിലേറ്റഡായിട്ടുള്ള സബ്ജക്റ്റുകൾ മാത്രമാണ് കൂടുതലായിട്ടും അതിൽ വരുന്നത് ഒരു പൊളിറ്റിക്സ് എടുത്താൽ അതിൻ്റെ കോ പേപ്പറുണ്ട് പൊളിറ്റിക്സും

ഹയർ സെക്കണ്ടറിയിൽ നിന്നു പഠിച്ചതിലേറെയും അതു പോലെ തന്നെ സ്കൂളിൽ നിന്നു പഠിച്ചതിലേറെയും കൂടുതലായിട്ടുള്ളൊരു അറിവ് കിട്ടിയത് എന്നുള്ള ബോധ്യം നമ്മൾക്ക് വരും അതു പോലെ തന്നെ ഹിസ്ടറിയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ബി കോമാണെന്നുണ്ടെങ്കിലും അവർ ബി കോമൊക്കെ എടുത്ത ആളുകൾക്ക് കൊമേഴ്സിൽ അല്ലെങ്കിൽ അങ്ങനെ ബി ബിസിനസ്സ് എടുത്തവർക്ക് അവർക്ക് അതിലൊരു മറ്റുള്ളവർക്കില്ലാത്ത ഹയർ സെക്കണ്ടറി വരെ പഠിച്ചവർക്കില്ലാത്ത ഒരു അറിവ് അതിയിലുണ്ട് എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ട് ഇനി അവർ അതിൽ ജസ്റ്റ് ഫോക്കസ് ചെയ്തു പഠിച്ചാൽ തന്നെ പാസാകണം എന്നില്ല അവർ പോയി പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ അവർ അതിൻ്റൊരു പരിജ്ഞാനവും ഒരു നൈമുണ്യവും കിട്ടി എന്നുള്ളൊരു ബോധം എനിക്കുണ്ട് അങ്ങനെ തോന്നുന്നുണ്ട് എൻ്റെ ഡിഗ്രിയുള്ളവരിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാകുന്നു